എഴുത്തുകാരന് വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് പറഞ്ഞാല് ആശയദാരിദ്ര്യമെന്നുള്ളതാണ് ഒരാള് എഴുതാന് ഇറങ്ങിയാല് അയാള്ക്ക് വായിക്കാതെ എഴുതാൻ കഴിയുകയില്ല വായിച്ചാലേ ആശയങ്ങളുണ്ടാവുകയുള്ളൂ വായിക്കണം അനുഭവിക്കണം മനസ്സിലാക്കണം ഫീലിംഗ്സ് ഉണ്ടാകണം ഈ നാല് കാര്യങ്ങളില്ലാത്ത ഒരാള്ക്ക് എഴുതാൻ കഴിയുമെന്ന് ഞാന് വിശ്വസിക്കുന്നില്ല നാല് കാര്യത്തില് ഒന്നെന്തായാലും വേണം വായിച്ചാലേ അവന് ആശയങ്ങള് ലഭിക്കുകയുള്ളൂ എഴുതാനുള്ളത് അല്ലെങ്കിൽ അനുഭവിക്കണം യാത്രകളെ വര്ണ്ണിക്കാൻ ഏറ്റവും നല്ലത് വായനയെക്കാളും അനുഭവങ്ങളാണ് ഒരു സ്ഥലത്ത് യാത്ര പോയി അവിടെ കണ്ടതും കേട്ടതും അവിടെ അനുഭവിച്ചതുമൊക്കെ വിവരിക്കാന് എഴുത്തിലൂടെ കഴിയും അതിനാണ് അനുഭവം അനുഭവിച്ചേ എഴുതാൻ കഴിയൂ അതുപോലെ നമ്മളൊരുപാട് പുസ്തകങ്ങള് വായിച്ച് അതില് മനസ്സിലാക്കിയ കാര്യങ്ങള് എഴുതാന് അല്ലെങ്കില് എഴുത്തില് മറ്റു കാര്യം നമ്മൾ എഴുതുമ്പോള് അതില് അപ്ലൈ ചെയ്യാനുമൊക്കെ ഇത് സഹായിക്കും അതുപോലെ തന്നെ മറ്റൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുകയെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ മറ്റൊന്ന് ഫീലിംഗ്സാണ് നമുക്ക് വരുന്ന ചിന്തകള് വെറുതെയിരിക്കുമ്പോള് വരുന്ന ചിന്തകള് നമ്മള് അനുഭവിച്ച ഫീലിങ്സ് ഉണ്ടാവില്ലെ ഇമോഷൻസ് അതിനെ എഴുത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും പക്ഷേ അതില് ചിലപ്പോള് ആശയങ്ങള് എഴുതാൻ സഹായിച്ചുകൊള്ളണമെന്നില്ല അവിടെ മറ്റൊരു രീതിയിലുള്ള ഇതാണ് ഏറ്റവും വേണ്ടത് ഒരാൾക്ക് എഴുത്തില് ഏറ്റവും വെല്ലുവിളിയെന്ന് പറയുന്നത് ആശയദാരിദ്ര്യമാണ് നമ്മളൊരു കാര്യം പറയുമ്പോഴും എഴുതുമ്പോഴുമൊക്കെയുള്ള അവസ്ഥ അതുതന്നെയാണ് ആശയങ്ങളില്ലെങ്കിൽ അവിടെ വാക്കുകളില്ല എഴുതാനുള്ള വരികള് അവിടെയുണ്ടാവില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ആശയങ്ങളുണ്ടാകാനുള്ള വഴികളാണ് ഇപ്പോള് ഞാൻ പറഞ്ഞത് ഒന്ന് വായിക്കണം ഏറ്റവും മുഖ്യം വായനയാണ് വായിക്കാത്തവന് എന്തായാലും എഴുതാൻ കഴിയില്ല അതുപോലെ തന്നെ അനുഭവിക്കാത്തവന് എന്തായാലും അനുഭവങ്ങളുണ്ടാവില്ലല്ലോ അപ്പോള് അവനൊന്നും ഓർമിക്കാനുണ്ടാവില്ല അതും എഴുതണമെങ്കിലും അനുഭവങ്ങള് വേണം വായനയില്ലെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഫീലിങ്സ് വേണം ഒരുപാട് നല്ല നല്ല മെമ്മറീസ് നല്ല അവസ്ഥകളും മോശം അവസ്ഥകളും എല്ലാമുണ്ടാകുമ്പോഴാണ് നമുക്ക് അതിനെ മറ്റൊരു രീതിയില് അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ അപ്പം ക്രിയേറ്റീവ് ബ്ലോക്ക് അല്ലെങ്കിൽ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാല് ഒറ്റവാക്കില് ആശയദാരിദ്ര്യമെന്നാണ് പറയുക എഴുതാന് ഉം അതുതന്നെ